ഹലോ ഹലോ അതെ ക്ലൈമറ്റെന്ന് പറയാൻ മാഡം ഇപ്പം മഴയുണ്ട് കഴിഞ്ഞ അത്രയും ഇല്ല എന്നാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ മഴകാരണം ഇപ്പം കുറെ സ്ഥലങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുവാണ് ഈ കുറുവ കുറവാദ്വീപ് പിന്നെ എടക്കൽ ഗുഹ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പം അടച്ചിട്ടിരിക്കുവാണ് അല്ലാതെ ഇപ്പം ബാണാസുര സാഗറ് ബാണാസുര അവിടെ പിന്നെ ഈ പുഴ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഡാമുകളൊക്കെ അടച്ചിട്ടിരിക്കുവാണ് അല്ല ബാണ അ ബാണാസുര സാഗറില് കുഴപ്പമില്ല ഇപ്പം അനുവദിക്കുന്നുണ്ട് സഞ്ചാരികളെ ഇപ്പം പിന്നെ ഇവിടെ പഴുത്തി പാർക്ക് ഉണ്ട് അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല ആ അവിടെയൊക്കെ കാണാൻ പോകാൻ പറ്റും വരുന്നുണ്ടോ നിങ്ങള് അതെയോ അ ഏ സ്ഥിരമായിട്ട് മഴയില്ല എന്നാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഈ കുറുവാദ്വീപ് പോലെയുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങളാണ് അടച്ചിട്ടിരിക്കുന്നത് മഴ കാരണം ബാക്കി സ്ഥലങ്ങളൊക്കെ തുറന്നിട്ടിട്ടുണ്ട് പഴുത്തി കുടീരം ഉണ്ട് പഴുത്തി പാർക്ക് ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും അല്ല എപ്പോഴത്തേക്കാണ് എത്തുന്നത് എപ്പോഴത്തേക്ക് വരാനാണ് ആ ആ ആയിക്കോട്ടെ മാഡം അപ്പത്തേക്കും മഴ ഏകദേശം മാറുവായിരിക്കും ആ നിങ്ങള് കുറെ ആൾക്കാരുണ്ടോ

ആ ആ അ അപ്പോൾ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം ഒന്ന് രണ്ട് സ്ഥലങ്ങളെ കാണാൻ പറ്റാതെ ആവുന്നുള്ളൂ മഴ കാരണമാണ് ബാക്കി കുഴപ്പമൊന്നുമില്ല മഴ അങ്ങനെ സ്ഥിരമായിട്ട് പെയ്യുന്നില്ല ഇടയ്ക്ക് ഇടയ്ക്കിങ്ങനെ പെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ഉം എന്നാൽ പോന്നോളൂ കെട്ടോ പോകുമ്പോൾ എന്നേ വരുമ്പോൾ എന്നേ വിളിച്ചാൽ മതി ആ ശരി ഓക്കെ